ഇന്ത്യയിൽ പൊതുവേ ഒരുപാട് എന്താ പറയുക ഒരുപാട് ലാംഗ്വേജുകൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് കൂടുതലായിട്ടും വരുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സംസ്കൃതം പിന്നെ ഉറുദു അറബി അങ്ങനത്തെ ലാംഗ്വേജൊക്കെ കുറേയൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ഫ്ലുവൻസിയല്ലെങ്കിൽ ഫ്ലുവൻ്റായിട്ട് ആൾക്കാർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി പിന്നെ കന്നഡ അങ്ങനത്തെ ലാംഗ്വേജുകളൊക്കെയാണ് കൂടുതലും ആൾക്കാർ യൂസ് ചെയ്യുന്നത് പൊതുവേ ഇപ്പോൾപ്പിന്നെ കൂടുതൽ ആൾക്കാരും ഈ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാൻ വേണ്ടിയിട്ടാണ് മറ്റു ഭാഷകളൊക്കെ പഠിക്കുന്നത് ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകുവാൻ വേണ്ടിയിട്ട് ജർമൻ ലാംഗ്വേജൊക്കെ കുറേ ആൾക്കാരിപ്പോൾ പഠിക്കുന്നൊക്കെയുണ്ട് അതിന് വേണ്ടിത്തന്നെ ഇപ്പോൾ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിളാണ് എന്നാലും ഇപ്പോൾ എന്താ പറയുക ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ആൾക്കാർ ഓരോ ഭാഷകൾ ഇപ്പോൾ പഠിച്ചു വരികയാണ് ചെയ്യുന്നത് കൂടുതലും ഇപ്പോൾ ആൾക്കാർ ഇംഗ്ലീഷ് തന്നെയാണ് ഫ്ലുവൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെപ്പോയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവർക്കും എളുപ്പത്തിലിപ്പോൾ എവിടെപ്പോയാലും സംസാരിക്കാൻ ആശയവിനിമയം ആശയവിനിമയങ്ങൾക്കായാലും ഇംഗ്ലീഷ് വലിയ രീതിയിൽത്തന്നെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരഭിപ്രായം പിന്നെ കൂടുതലും ഇപ്പോൾ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത് മലയാളം തന്നെയാണ് അല്ലാണ്ട് വേറെ ലാംഗ്വേജ് പിന്നെ മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് അങ്ങനെ ഈ രണ്ടു ലാംഗ്വേജാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ളയിടത്തൊക്കെ ഒരുപാട് ലാംഗ്വേജുകൾ വേറെ ഉണ്ട് അത് അവരതുപോലെതന്നെ ഉപയോഗിക്കുന്നും ഉണ്ട്